ആ മേം പറയു ആ അതെ ആ ഏത് കാർ ആയിരുന്നു വേണ്ടത് ഏതായിരുന്നു കേട്ടില്ല ആ ഓക്കേ ഓക്കേ അതിൽ ഏതു മോഡലാണ് വേണ്ടത് ആ ഓക്കേ ഓക്കേ അതിൽ ലേറ്റസ്റ്റ് മോഡലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ഓപ്ഷൻ ആണ് വരുന്നത് അതിൽ ഇപ്പോൾ പവർ വിൻ്റോ ഉണ്ട് പിന്നെ ഫ്രണ്ട് രണ്ട് പവർ ഇത് എയർബാഗ് ഉണ്ട് ബാക്ക് രണ്ട് എയർബാഗ് ഉണ്ട് ഫുൾ ഓപ്ഷനിൽ പിന്നെ ബാക്ക് വൈപ്പറ്

ആ പെർഫോമൻസ് ഒക്കെ നല്ല പെർഫോമൻസ് ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇതാണ് നല്ല കാൽ കൊടുത്ത് കഴിഞ്ഞാൽ നല്ലോണം കയറിപ്പോവും കുഴപ്പമൊന്നുമില്ല വണ്ടി ആ പിന്നെ ഈ ഇതിനകത്ത് വരുന്ന മ്യൂസിക് സിസ്റ്റം വരുന്നത് പ്രൈമിയറിൻ്റെ മ്യൂസിക് സിസ്റ്റം ആണ് വരുന്നത് അതായത് നമ്മൾക്ക് ആൻഡ്രോയ്ഡ് ടച്ച് ചെയ്ത് നമുക്ക് കൺട്രോൾ ചെയ്യാം ആ ഏതാണ് സ്വിഫ്റ്റാണോ ആ സ്വിഫ്റ്റ് ആണെങ്കിൽ അതിന് മുന്നേ മുക്കാൽ ലക്ഷം രൂപ വരും ബേസ് മോഡലിന് ബെയ്സിന് അതായത് ബെയ്സ് ആകുമ്പം ഒന്നും ഉണ്ടാകില്ല ഫ്രണ്ട് രണ്ട് ഡോറ് പവർ വിൻ്റോ മാത്രമാണ് വരിക പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും വേറെ കാര്യങ്ങളൊന്നും മ്യൂസിക് സിസ്റ്റം ഉണ്ടാവില്ല പിന്നെ മറ്റേ സംഭവങ്ങളൊന്നും ഉണ്ടാകില്ല അത്രയേ ഉണ്ടാവുള്ളൂ പിന്നെ അതിൻ്റെ മിഡിൽ ഓപ്ഷൻ ഉണ്ട് അതിനകത്ത് ഫ്രണ്ടും ബാക്കും പവർ വിൻ്റോ ഉണ്ട് മ്യൂസിക് സിസ്റ്റം എന്നു പറഞ്ഞാൽ സാധാരണ ഒരു മ്യൂസിക് സിസ്റ്റം ആയിരിക്കും കാർ സ്റ്റീരിയോ അത് മാത്രമേ ഉണ്ടാവുള്ളൂ കുറച്ചുകൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത് ഇതാണ് തോന്നുന്നത് അതായത് നമ്മള് ഫുൾ ഓപ്ഷൻ എടുക്കുന്നതാണ് നല്ലത് അതാവുമ്പം ഏഹ് എങ്ങനെ കേൾക്കുന്നില്ലേ മേം കളറ് പല തരം കളറുണ്ട് ഇന്റീരിയൽ റെഡ് ഉണ്ട് ആ ഒരു വൈറ്റ് ഉണ്ട് ഈ മൂന്ന് നിറമാണ് ഇപ്പോൾ ഫുൾ ഓപ്ഷനിൽ വരുന്നത് ബാക്കി ഉള്ളതിലൊക്കെ ലോ ഓപ്ഷനിൽ വരുന്ന കളറ് വേറെ കളറ് ഗ്രേ കളറ് വരും ആ എപ്പോഴാണ് വരുന്നത് നോക്കാൻ വണ്ടി ആ ലോൺ ഇടാം നമ്മൾക്ക് ആ പേപ്പർ ഒക്കെ ആയിട്ട് വന്നാൽ മതി ഒരു ചെക്ക് ബുക്കും ആധാർ കാർഡൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ലോൺ തരാം ആ ഓക്കേ മേം എങ്ങനെ ഷോറൂമ് മാനന്തവാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒറ്റപ്പാലത്ത് ആ മതി മതി മതി ആ മതി മതി ഓക്കേ ഓക്കേ മേം